എൻ്റേത് ഒരു ഗ്രാമമായത് കൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് അങ്ങനെ പ്രശസ്തമായ കോളേജ്കളൊന്നും പറയാനില്ല തൃശ്ശൂർ ആയത് കൊണ്ട് തന്നെ എൻ്റെ കോളേജ് ഇപ്പോൾ വിമല ഒരു കോളേജാണ് അതേപോലെ തന്നെ എഞ്ചിനീയറിങ്ങ് കോളേജ് ക്രൈസ്റ്റ് അങ്ങനെ എൻ്റെ അടുത്തുള്ളത് ക്രൈസ്റ്റാണ് ക്രൈസ്റ്റെന്ന് പറയുന്നത് എപ്പോഴും പല ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അവിടെ എൻ്റെ കുടുംബത്തിലെ അകന്ന ബന്ധത്തിലുള്ള കുറേ പേര് പഠിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കുടുംബം സ്വന്തം കുടുംബത്തിൽ നിന്നാരും അങ്ങനേ പഠിച്ചിട്ടില്ല അങ്ങനെ എല്ലാവരും പ്രഫഷണൽ ഡിഗ്രികൾക്കാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിങ്ങ് അങ്ങനെ ഡിഗ്രികൾക്കാണ് പോയിട്ടുള്ളത് ക്രൈസ്റ്റിൽ പോയി പഠിച്ചിട്ടുള്ളവർ വളരെ കുറവാണ് പിന്നെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ എന്നുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ വിമലയിൽ പഠിക്കുന്നത് അതുകൊണ്ട് സ്വസ്ഥമാണ് അതുകൊണ്ട് ഞാൻ ആ കോളേജിൽ പഠിക്കുന്നു അങ്ങനെ പിന്നെ നമ്മൾ പഠിക്കുന്ന കോളേജുകളെല്ലാം നമ്മളുടെ കാര്യങ്ങൾ എടുക്കുന്ന നമ്മൾ അങ്ങനെയാണ് ആ കോളേജിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മുടെ പിന്നീടുള്ള ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കോളേജിൽ പഠിത്തത്തിലുള്ള സ്ഥലം കൂടി നമ്മളുടെ കലയും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയിട്ടുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ പഠിക്കണ കോളേജുകളിലെല്ലാം നമ്മൾ അപ്പം നല്ല കോളേജിൽ പോയിട്ട് പിന്നീട് മോശമായൊരു ഭാവി ഉണ്ടാവുമത്രേ പേരെൻ്റിൻ്റെ ഭാഷയിൽ നമ്മൾ അവിടെ പോയി പഠിക്കണ്ട അതൊരു പൊട്ട കോളേജാണ് പറയുന്ന സ്ഥലത്തൊന്നും എത്തണമെന്നില്ല കുട്ടികളും യുവാക്കളും യുവതികളും എന്ന് പുറത്തേക്കിറങ്ങും അതു കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ അല്ല നമ്മളുടെ ഒക്കെ കാര്യങ്ങൾ കിടക്കുന്നത് നമ്മളിങ്ങനെയാണത് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അതിലാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കോളേജുകളുടെ പ്രാവീണ്യവും അവരെ പ്രശസ്തിയും നോക്കി പഠിക്കുന്നതിനേക്കാൾ ഭേദം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ടേസ്റ്റിനും പറ്റിയ കോഴ്സുകളുള്ള നല്ല കോളേജുകളിൽ പോയി അംഗീകൃതമായതും നല്ല കോളേജുകളിൽ പോയി പഠിക്കുന്നതാണ് നമ്മുടെ മുൻഗണനയും നമ്മുടെ കാര്യങ്ങളും കൊടുക്കുന്നത് നമ്മളാണ് നമ്മളെ ഭാവിയെ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലും അങ്ങനെ ഉള്ളൊരു ചിന്താഗതി ആയത് കൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്കോ പോയി വരാൻ പറ്റിയ സാഹചര്യത്തിലുള്ള ഒരു കോളേജിലാണ് ഞാൻ വന്ന് പഠിക്കുന്നത് ആ അതിലും ഞാൻ വളരെ ഹാപ്പിയാണ് അങ്ങനെ ഒരു തീരുമാനം എൻ്റെ വീട്ടിലുള്ളവർ എടുക്കുന്നത് കൊണ്ടും അങ്ങനെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടും എൻ്റെ വീട്ടുകാരായി അങ്ങനെ അങ്ങനെ ഇന്ന കോളേജിൽ പോയി പഠിക്കണമെന്നൊന്നും എൻ്റെ വീട്ടുകാർക്കില്ല പഠിക്കുമ്പോൾ നല്ല രീതിക്ക് പഠിച്ച് പാസ്സായി വരിക അതാണ് എൻ്റെ എല്ലാവരും പറയാറുള്ളത്